ആ ഇത് ഇത് കാശിനാഥൻ്റെ അമ്മയല്ലേ ഓക്കെ ഓക്കെ ഞങ്ങൾക്ക് അടുത്ത മാസം സ്പോർട്സ് മീറ്റ് പിന്നെ സ്കൂളിൽ വച്ച് നടക്കുന്നുണ്ട് അപ്പം കുട്ടീനെ ഈ വർഷം എങ്ങനെയാണ് എല്ലാത്തിനും ചേർക്കില്ലെയെന്നൊക്കെ അറിയാനാരുന്നു ആ ഞാൻ ഹൈ ഹൈ ജമ്പിനും ലോങ്ങ് ജമ്പിനൊക്കെ പേര് കൊടുക്കട്ടെ ഷോട്ട്പുട്ട് കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു ഈ വർഷം ചെയ്യാൻ പറ്റുമോ ഓക്കെ ഓക്കെ നിങ്ങൾ വീട്ടീൽ നിന്ന് അവനെ സ്പോർട്സിന് ഓട്ടം ഒക്കെയൊന്ന് ജസ്റ്റ് ഒന്ന് പിന്നെ അവിടെയടുത്ത് ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയായിരുന്നെങ്കിൽ റിലേയ്ക്കൊക്കെ കൊടുക്കായിരുന്നു കൊച്ചിൻ്റെ പേര് അപ്പോൾ നമുക്ക് അടുത്ത മാസം പതിമൂന്ന് പതിനാലാണ് നമ്മൾ മീറ്റ് വച്ചിരിക്കുന്നത് നന്നായിട്ടവൻ കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്തൊരാ കുട്ടിയാണ് അപ്പോൾ ഈ വർഷം എല്ലാത്തിനും അവൻ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ജില്ലയില്ലും സബ് ജില്ലയിലൊക്കെ പോകുവാൻ പറ്റുന്ന ഒരു ഞങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ആ കുട്ടി അപ്പോൾ നിങ്ങളെ ഒരു കാര്യം ചെയ്യണം പിന്നെ ഇതിൽ ജേഴ്സി കൊടുത്തു വിടണം പിന്നെ ഷൂ ഇല്ലേ ഷൂ കൊടുത്തു വിടണം പിന്നെ അതേപോലെതന്നെ സ്നാക്സും വെള്ളമൊക്കെ കൊടുത്തു വിടണം പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി ഞാൻ എല്ലാത്തിനും അവൻ്റെ പേര് കൊടുക്കാം അപ്പോഴൊരു നമുക്ക് ഇത്ര എത്ര ഐറ്റംസിന് കൊടുക്കുക അത്രയും അതിന് ഇതിന് കൊടുക്കണം അപ്പം ഞാനിവൻ്റെ പേര് എല്ലാത്തിനും കൊടുത്ത് നോക്കാം അവന് പറ്റുന്നതിലൊക്കെ അവൻ കൂടിക്കോട്ടെ ഒരു കാര്യം ചെയ്യു വീട്ടിൻ്റെ അടുത്തുള്ള പിന്നെ പ്രാക്ടീസ് എടുക്കുന്നിടത്ത് നിങ്ങൾക്കെന്തെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ എന്ത് എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സ്പോർട്സിൽ ഓട്ടം പറ്റില്ലേ പിന്നെ ലോങ്ങ് ജമ്പ് ഹൈ ജമ്പിനും ഷോട്ട്പുട്ടും ഡിസ്റ്റിക്സ് ത്രോയൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഇതാക്കാം ഷോട്ട്പുട്ടും പിന്നെ ഹൈ ജമ്പും ലോങ്ങ് ജമ്പും ജസ്റ്റൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് ചിലപ്പോൾ അവൻ ചാടുമെങ്കിലോ ചുമ്മ ഒന്ന് വച്ചു കൊടുത്താൽ മതി പ്രാക്ടീസില്ലാതെ ചിലപ്പോൾ ഒടുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ കുറച്ച് റിസ്ക്കായിരിക്കും പ്രാക്ടീസോടെ ഓടുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ അവൻ കിട്ടാൻ ചാൻസുണ്ട് ഓക്കെ ഓക്കെ എന്നാൽ ശരി